ആ ആ ഓക്കേ പറഞ്ഞോളൂ അതേ ഞാൻ ലോൺ എടുക്കണം എന്ന് ഓർത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇൻട്രസ്റ്റെടാണ് ഏതൊക്കെ ടൈപ്പ് ലോണുകളാണ് ഉള്ളത് ആ ഞാൻ ഹൗസിങ് ലോൺ എടുക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇൻട്രസ്റ്റഡ് അതിലാണ് ആ അപ്പോൾ ആ ആ ഓക്കെ എസ് ആ എൻ്റെ വീട് ഇത്തിരി പുതിയൊരു പുതിയ വീട് വെക്കണത് അകത്ത് ഇത്തിരി വലിയ വീടാണ് വെക്കുന്നത്

ആ അപ്പം ലോണെങ്ങനെയാണത് ഇൻട്രസ്റ്റ് റേറ്റ് നം ഒരു അത്യാവശ്യം നമുക്ക് അഫോഡബിൾ ആയിരിക്കണം ഓക്കെ പിൻ ആ ഓക്കെ അതേ പോലെ തന്നെ ഇത് തിരിച്ചടക്കേണ്ടത് എപ്പോൾ എത്ര കാലത്തിനുള്ളിൽ തിരിച്ചടക്കണം നമ്മൾ ഓ ആ ഓക്കെ ആ അപ്പോൾ നമ്മൾ എന്തേലും ഡോക്യുമെൻ്റ്സ് സബ്മീറ്റ് ചെയ്യേണ്ടത് ആയിട്ട് വരുമോ ഈ ലോൺ എടുക്കാൻ ആവശ്യത്തിന് ആ ഓക്കെ ആ പിൻ ഓക്കേ ഇപ്പോൾ നമ്മൾ ഇൻകേസ് ഞാൻ ഇപ്പോൾ ഈ ലോണെടുത്തു അപ്പോൾ അത് എനിക്ക് തിരിച്ചടക്കാൻ ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക

ഈ ലീഗൽ ആക്ഷൻസ്ന്ന് പറയുമ്പോൾ ആ ഓക്കെ ഒ അപ്പോൾ എനിക്ക് വേറൊരു സംശയം കൂടിയുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലോണെടുത്തു അതിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ലോണും കൂടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു ലോൺ എടുക്കാൻ എടുക്കാൻ പറ്റുമോ

ഓക്കെ കൂടുതൽ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ അപ്പോൾ ആ ഓക്കെ ആ ഓ

അ അപ്പം ഓക്കെ അപ്പോൾ മറ്റ് ബാങ്കുകളിൽ നിന്നും ഈ ബാങ്ക് ലോണെടുക്കുക വ്യത്യസ്തമായിട്ടുള്ള കാരണമെന്താണ് വ്യത്യസ്തമാകാൻ കാരണം ആ ബാങ്കിൻ്റെ സ്കീം ഏതൊക്കെയാണ്

എനിക്ക് ഒരു ട്വെൻ്റി ലാക്സ് ലോൺ വേണമെങ്കിൽ അപ്പോൾ എങ്ങനെ ആയിരിക്കും

ഇപ്പം ഞാൻ ഇത് ബാങ്കിൽ വന്നിട്ട് താങ്കളുടെ അടുത്തോട്ടാണോ വരേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ കുട്ടിക്കാനം ബ്രാഞ്ചിൽ നിന്നല്ലേ വിളിക്കുന്നത് ആ ഞാൻ ഇവിടെയുള്ള ആൾ തന്നെയാണ് അപ്പോൾ താങ്കൾ ബാങ്കിൽ വന്ന് താങ്കളെ കണ്ടാൽ മതിയായിരിക്കുമോ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ വേറെയൊന്നുമില്ല ഓക്കെ താങ്ക് യു